ഹലോ നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങളുടെ വൈദ്യുതി ബില്ലിനൊരു ഓൺലൈൻ പേയ്മെൻറ് നടത്തിയിരുന്നു പക്ഷേ ആ ഇടപാട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റില് കാണിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ പേയ്മെൻറ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കാന് നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുനോക്കേണ്ടി വരും എത്രയായിട്ടും ഞാൻ നോക്കിയിട്ടും അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് തുടർന്ന് നിങ്ങളുടെ ബിൽ പേയ്മെൻറിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാന് എലക്ട്രിസിറ്റി ബോർഡിനെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താല് മതിയാകുമോ എന്താണ് വേണ്ടതെന്നൊന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ആ അതെ അല്ല ഈ വൈദ്യുതി ബില്ലിൻ്റെ ഒരു ഓൺലൈൻ പേയ്മെൻ്റ് അത് നടത്തിയിട്ടും പക്ഷെ അതൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള അതോ അതിൻ്റെ ഏതെങ്കിലും നമ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് തന്നിരുന്നുവെങ്കില് അവര്ക്ക് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ ഇതിനെ സംബന്ധിച്ചുള്ള ആൾക്കാരുടെ ആരുടെയെങ്കിലും നമ്പറോ കാര്യമോ കിട്ടിയാലും മതി ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാല് താങ്ക് യൂ